ഹലോ അതെയല്ലോ മ്മ് മ്മ് ആ ഈ നെല്ലിയ്ക്കാ ഏത്തയ്ക്കാ ചക്കയൊക്കെയുണ്ട് അത് കൂടാതെ വേറെ ഫ്രൂട്സുകളുമുണ്ട് ആപ്പിള് ഓറഞ്ച് മുന്തിരിയൊക്കെയുണ്ട്

ആണോ ആ ആണോ ആ നല്ല ഫ്രഷാണ് നല്ല നെല്ലിയ്ക്കയാണ് കിലോ നൂറ്റിപത്ത് രൂപ ആ അത് നല്ല നെല്ലിക്കയെന്നോ നല്ല പുത്തൻ നെല്ലിക്ക ഒരു കേടുമില്ല അച്ചാറ് ആ അച്ചാറിടാനൊക്കെ നല്ലതാണ് മ്മ് കല്യാണത്തിന് ഇനി കല്യാണത്തിന് എന്തോ ചക്ക നല്ല വരിക്കചക്കയാണ് വറുക്കാനും നല്ലതാണ് പഴുപ്പിക്കാനും നല്ലതാണ് പഴുത്ത് വരുന്നുണ്ട് മ്മ് ഇല്ല അങ്ങനെയൊന്നുമില്ല പുളിയൊന്നുമില്ല നല്ലതാണ് മ്മ് മധുരമൊക്കെ നല്ല വരിക്കചക്കയല്ലെ നല്ല മധുരമുള്ളത് വേറെ ആപ്പിളുണ്ട് നല്ല ഊട്ടി ആപ്പിളാണ് പിന്നെ ഓറഞ്ച് നല്ല നല്ല ഓറഞ്ച് പഞ്ചാബില് നിന്നൊക്കെ വന്നതാണ്

ഏത്തയ്ക്ക ഏത്തപ്പഴം ഒന്ന് പഴുത്ത് വരുന്നതേയുള്ളൂ ആ മ്മ് മ്മ് അതിൻ്റെ കിലോ എണ്പത്തിയഞ്ച് രൂപയാണ് മ്മ് മ്മ് മ്മ് മ്മ് ആയിക്കോട്ടെ നാല് കിലോ എടുക്കാം മ്മ് ഇടത്തരമാണ് ഇടത്തരം

ലൈറ്റ് മഞ്ഞ കളര് പഴുത്ത് വരുന്നതേയുള്ളൂ മ്മ് ഇല്ല വേവിക്കാൻ പറ്റുകയില്ല പഴുത്തത് തിന്നുവാനെ പറ്റുകയുള്ളൂ

വേറെന്തെങ്കിലും ഫ്രൂട്സ് എന്തെങ്കിലും വേണോ മ്മ് മ്മ് മ്മ് അത് ഉണ്ട് ഉണ്ട് മ്മ് വേവിക്കാനുള്ളതുമുണ്ട് ഫ്രൂട്സ് പഴമായിട്ട് എടുക്കാനുള്ളതുമുണ്ട് മ്മ് മ്മ് നെല്ലിക്ക മ്മ് രണ്ട് കിലോ മ്മ് ആ രണ്ട് കിലോ നെല്ലിക്ക ആ ഒരു ആ ആ എഴുതിയെടുക്കുന്നുണ്ട് ഉണ്ടുണ്ട് മ്മ് ആ അതിപ്പം അങ്ങോട്ട് കൊണ്ടുവന്ന് തരണോ ഇങ്ങോട്ട് വരുമോ കൊണ്ടുവന്ന് തരാം അങ്ങനെയുമുണ്ട് കൊണ്ടുവന്ന് തരുന്നതുമുണ്ട്

ആ മതി ആ കൊണ്ടുതരും കൊണ്ടുതരും കൊണ്ടുതരുമ്പോള് ആ അപ്പം അപ്പോള് പൈസ തന്നാലും മതി വരുമ്പോള് ഒന്ന് വിളിച്ചിട്ട് വരികയാണെങ്കില് ഞങ്ങള് എല്ലാം എടുത്തുവെയ്ക്കാം ആ മ്മ് മ്മ് എപ്പോഴാണ് വേണ്ടത്

ആ ഇന്ന് മ്മ് ആ പത്തരയ്ക്ക് മുമ്പ് വരാം പത്തരയ്ക്ക് മുമ്പ് കൊണ്ടുവരാം എന്തായാലും ആ എന്നാല് ശരി ആയിക്കോട്ടെ